ഹലോ ഇത് നെല്ലികുത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ ലാൻഡ്ലൈൻ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് കാരണം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഏകദേശം ഒരാഴ്ചയായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോള് നിലവിലുള്ളത് അതുകൊണ്ട് ഭയങ്കരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ പലയാളുകളും അത് കിട്ടുന്നില്ലെന്നുള്ള ഒരു റിപ്പോർട്ട് തന്നുകഴിഞ്ഞു ചിലയാളുകൾക്കൊക്കെ കിട്ടുന്നുണ്ടെന്നതും അറിയാൻ കഴിഞ്ഞു അപ്പോള് അതിൻ്റെ പണം അടയ്ക്കാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും സംശയം പക്ഷേ പലരും ഇപ്പോള് അടുത്ത് പണം അടച്ചവരും ചിലർക്ക് കിട്ടുന്നില്ലെന്നുള്ളതും കേട്ടു അപ്പോള് അതിൻ്റെയൊരു കൺഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോള് അതൊന്ന് നമ്മള് ലാൻഡ്ലൈൻ ഇല്ലാഞ്ഞിട്ട് ഭയങ്കരം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നിലവില് കാരണം പരസ്പരം കോളിംഗുകൾക്കോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടാനൊന്നും കഴിയുന്നില്ല പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊ ഒക്കെയുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കരം ബുദ്ധിമുട്ടുകൾ നന്നായി അനുഭവിക്കുന്നുണ്ട് അപ്പോള് അതിൻ്റെ പ്രശ്നം എന്താണെങ്കിലും അതൊന്ന് പരിഗണിച്ച് അതൊന്ന് പരിഹരിച്ച് തരണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഓക്കെ താങ്ക് യൂ